ഹലോ ഡോക്ട്രേ എനിക്ക് ഭയങ്കര പല്ലു വേദനയാണ് എന്താ ചെയ്യേണ്ടത് അറിയുമോ പേര് റോഹൻ ഒരാഴ്ചയായി കാണിച്ചില്ല അണപ്പല്ലും എല്ലാം കുറച്ച് ഭയങ്കര വേദനയാണ് അണപ്പല്ലാണ് കൂടുതൽ വേദന ഞാൻ ഫ്രഷ് മോമെൻ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല

കേടുള്ളതൊന്നും കണ്ടിട്ടില്ല ഉള്ളിൽ ഉള്ള് നല്ല വേദനയാണ് ആയിരിക്കാം അല്ലേ വീട് മാന്തവാടി കാട്ടിക്കുളം ഓ പോകാമല്ലോ

ഒരു അഞ്ചര ആറര അതിൻ്റിടക്കുള്ള ഓക്കെ ഡോക്ടർ ഓക്കെ ഡോക്ടർ

ഏയ് ഇല്ലില്ല ഓക്കെ എന്നാൽ ഡോക്ടറേ കാണിച്ചോ ഓക്കെ ഓക്കെ ശരിയെന്നാൽ